ഹലോ

അതേല്ലോ അതെ ആ പറഞ്ഞോ സാറെ അറിയാം

ആ ഹാ ആ അയ്യോ ഇവിടെ വീട്ടിൽ വന്നാൽ ആ സാറെ ഞാൻ ശ്രദ്ധിച്ചോളാം സാറെ അവൻ പറഞ്ഞാലൊന്നും ഇപ്പോൾ കേൾക്കത്തില്ല ഭയങ്കര കളി കളിയുടെ പുറകെയൊക്കെയാണ് ഇപ്പം അതുകൊണ്ടൊക്കെയാണ് വീട്ടിൽ വന്നാലും പ്രാക്ടീസൊന്നും ചെയ്യുന്നൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞ് പറയാം അവൻ പാട്ടൊക്കെ പഠിക്കും പാടുന്നുണ്ടോ സാറെ ആ അതെ സാറെ ഞാനവൻ വരുമ്പോഴത്തേക്കും അവനോട് സംസാരിക്കാം വീട്ടിൽ വരുമ്പം ആ ഞാൻ പറയാം അവൻ്റെ അച്ഛൻ്റടുക്ക പറഞ്ഞ് ഞാൻ സംസാരിപ്പിക്കാം സാറ് നല്ല അടിയൊക്കെ കൊടുക്ക് സാറെ അല്ലാണ്ടിപ്പം വീട്ടിൽ വന്നിരുന്നാലും അവൻ പറഞ്ഞാലധികം കേൾക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നെ പേടിയില്ല ചേട്ടനെങ്ങാണ്ട് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ അപ്പം ചേട്ടൻ പണി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഒരിതുകൊണ്ട് ഞാനും പിന്നെ അവനിങ്ങു കിടക്കുവൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാൻ പുള്ളി അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അപ്പം എൻ്റടുക്കെ ഇതാരും പറഞ്ഞില്ല പറഞ്ഞായിരുന്നേൽ ഞാൻ മുന്നേ ഞാൻ നോക്കിയേനായിരുന്നു അവൻ്റെ താല്പര്യം കൊണ്ട് അവന് പോണം എന്ന് പറഞ്ഞകാരണം അവൻ്റെ ഇഷ്ടത്തിനാണ് ചേർത്തത് അപ്പം ഇപ്പം എന്നാണെന്ന് അറിയത്തില്ല വരുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കാം സാറെ എന്നിട്ട് അതിന് വേണ്ട കാര്യം എന്നാന്ന് വച്ചാൽ ചെയ്യാം വീട്ടിയിരുത്തി പഠിപ്പിക്കലാണ് സാറെ അതെനിക്കു ആ വീ വീട്ടിലവൻ ഇരുന്നങ്ങനെ പ്രാക്ടീസൊന്നും ചെയ്യുന്നൊന്നുമില്ല അങ്ങനെ പാടാനൊക്കെ പറഞ്ഞാലും ഭയങ്കര വഴക്കും പിള്ളേരെ കൂടെ കൂടെ കളിയും അതും ഇതൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് കൂടുതലും

ആ സാറെ ഞാനിനി വരുമ്പോഴത്തേക്കും അവനോട് ചോദിക്കാം കലോത്സവം വരുന്നുണ്ട് അപ്പോൾ അതിന് അവനെ മത്സരത്തിൽ ചേർക്കുന്നുണ്ടോ സാറേ അതേല്ലെ സാറേ ഇനിയെന്നാണ് ഞാൻ

ആ ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധിച്ചോളാം സാറെ ഞാൻ വേറെ കുഞ്ഞ് രണ്ട് പിള്ളേർ വേറെ ഉള്ളതോണ്ട് അതിങ്ങടെ കാര്യം കൂടെ നോക്കുന്നത് കൊണ്ടാണേ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഞാനിനി ഞാൻ ശ്രദ്ധിച്ചോളാം സാറേ അപ്പോൾ ഞാനിനി ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് റെഡിയാക്കിക്കോളാം ഓക്കെ ശരി താങ്ക്സ്